ആരാണ് സംസാരിക്കുന്നത് ഓക്കെ

ഓക്കെ ഓക്കെ ഓക്കെ

ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ മ് മ് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആൻറ്റി ആൻറ്റിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വളരെ നല്ലതാണ് ഞങ്ങളുടെ ഇവിടെ അനേകം പേര് അസുഖമായിട്ട് വന്നിട്ട് ചികിത്സയൊക്കെ ചെയ്ത് സുഖ ചികിത്സകളിപ്പം നടത്തിയവർ പോയിട്ടുണ്ട് അവർക്കെല്ലാം നല്ലഭിപ്രായമാണ് അവർ വീണ്ടും പലപ്പോഴും ഇങ്ങോട്ടു വരാറുണ്ട് ഇവിടെ കൂടുതലായിട്ടും ചെയ്യാൻ ആൻറ്റിക്കിപ്പം മുട്ടിനു വേദനയും ദേഹത്ത് വേദനയൊക്കെയല്ലേ അതിന് കൂടുതലായും വെൽനെസ് ട്രീറ്റ്മൻറ്റുണ്ട് അതു ചെയ്താൽ മതിയായിരിക്കും അത് കൂടുതലായിട്ടും തിരുമ്മൽ ചികിത്സയുണ്ട് അത് നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്യാം പതിനഞ്ച് ദിവസമെങ്കിലും കുറഞ്ഞത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം

അതേയോ ആ ആൻറ്റീ പക്ഷേ ഓക്കെ ഓക്കെ ആ ആൻറ്റീ അങ്ങനെയുള്ളപ്പോൾ കൂടുതലായിട്ട് ഇവിടെ നമ്മൾ ഈ ചികിത്സയെന്നു പറയുന്നത് തിരുമ്മൽ ചികിത്സ ചെയ്യാറുണ്ട് പിന്നെ അല്ലാതെ ഈ ഉഴിച്ചിൽ പിഴിച്ചിൽ എണ്ണത്തോണി ചികിത്സ അങ്ങനെ പല രീതികളുണ്ട് ഇവിടെ അപ്പോൾ ആൻറ്റിക്ക് ഇങ്ങോട്ടു വരികയാണെങ്കിൽ നമുക്കതേപ്പറ്റിയൊന്നു സംസാരിക്കാം ആൻറ്റിയുടെ രോഗം എത്ര മാത്രം അതിൻ്റെ സീരിയസ്നെസ്സെത്രയാണെന്നോ മനസ്സിലാക്കി കാര്യങ്ങളെന്താണെന്നു മനസ്സിലാക്കി ആദ്യമൊന്ന് ചെക്കപ്പൊക്കെ നടത്തിയാൽ മാത്രമേ നമുക്ക് അതെത്ര ദിവസം കൊണ്ടു ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ മരുന്ന് കൊണ്ടിപ്പം മാറുന്നതേയുള്ളോ എന്നൊന്നു നോക്കി പറയാൻ പറ്റുകയുള്ളു ആൻറ്റിക്കിവിടെ ചികിത്സ ചെയ്യാനാണെങ്കിൽ കുറച്ച് പത്തു ദിവസം പതിനഞ്ച് ദിവസമെങ്കിലും കിടന്നു ചികിത്സ ചെയ്യുന്നത് കുറേ കൂടി ഉത്തമമായിരിക്കും കാരണം നല്ല ചികിത്സ നിങ്ങൾക്ക് ലഭിക്കും നല്ല ഫുഡ് ഞങ്ങളിവിടെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതേ ഓക്കെ ഓക്കെ എന്നാൽ അതെ ആൻറ്റി ഏതായാലും ഇവിടെ വരെ ഒന്നു വാ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ചെക്ക് അപ്പൊക്കെ നടത്തിക്കഴിയുമ്പോൾ പറയാം എന്തു ചെയ്യണം ഏതു രീതിയിലുള്ള ചികിത്സ വേണമെന്നു നമുക്കപ്പോൾ തീരുമാനിക്കാം ഏതായാലും ആൻറ്റി ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇവിടം വരെയൊന്ന് അതെയോ ആ പത്തനംതിട്ടയിൽ നിന്ന് ആൻറ്റി ഇവിടെ കാഞ്ഞിരപ്പള്ളിയിലാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ആയുർവേദ സെൻ്റർ അപ്പോളാൻറ്റിക്ക് വരാൻ സാധിക്കുകയാണെങ്കിൽ അവിടം വരെയൊന്ന് വരികയാണെങ്കിലോ ആദ്യമേ കണ്ട് ചികിത്സിക്കുമായിരിക്കും ഏറ്റവും നല്ലത് ഏതായാലും ആൻറ്റി അവിടം വരെയൊന്നു വരികയാണ് ഏറ്റവും നല്ലത് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ശരി ആൻറ്റി